ഹലോ ആ ആ ആ ആ അത് ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾ ഓക്കെ ഉറക്കെ കേൾക്കാമോ ഹലോ ആ ഞാനിങ്ങനെ ഓരോരുത്തരുടെ ഡെലിവറി കൊടുത്ത് കൊടുത്ത് വന്നുകൊണ്ടിരിക്കുവാണ് സാറിൻ്റെ പേരൊന്ന് പറയാമോ ആ തോമസ് ഫിലിപ്പ് അല്ലേ അപ്പം ആ റൂട്ട് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഏരിയ വരുമ്പോഴത്തേക്കും അങ്ങ് പറഞ്ഞേക്കാമായിരുന്നു തെ തെക്കേമല റൂട്ട് ആണോ ആ ആ അതെ അതെ ഞാൻ ആ അപ്പം ഞാൻ ഇങ്ങനെ ഓരോ പാഴ്സൽ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് വന്നുകൊണ്ടിരിക്കുവായിരുന്നു സാറേ അതുകൊണ്ടാണ് ഈ ഇത് വരുന്നത് അപ്പം ഈ ഏരിയയിലോട്ട് കുറച്ച് ഓർഡർ കൂടുതൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത് അപ്പം ഇന്ന സമയം ആ സാറേ അതിപ്പം അങ്ങനെ അല്ല സാറേ നമ്മൾ ഓരോ ഓരോ റൂട്ടിലോട്ട് നമ്മൾ കൊടുത്തു വിടുമ്പം നമുക്ക് പറഞ്ഞ സമയത്താണ് നമ്മൾ ഇത് തരുന്നത് ഇന്ന് ഇതായതുകൊണ്ട് തന്നെ പാക്കേജ് നമുക്ക് ആ സമയത്തിനുള്ളിൽ നമക്ക് തരാം കുഴപ്പമില്ല സാറേ അതൊന്ന് ഒന്ന് ഞാൻ ആ ഏരിയ വരുമ്പോഴത്തേക്കും ഞാൻ വിളിച്ചോളാം ആ അപ്പം സാറേ ആ ആ ഹാ ഹാ ആ സാറേ ആ തന്നിരിക്കുന്ന രജിസ്റ്റേർഡ് നമ്പറിലോട്ട് ഞാൻ വിളിച്ചോളാം അതൊന്ന് കുഴപ്പം ഒന്നുമില്ല ആ അപ്പം സാർ ഒന്ന് ആ ഒരു കാര്യങ്ങളൊന്ന് വിളിക്കുമ്പം ആൾ ഉണ്ടായാൽ മതി ഞാൻ അല്ലെങ്കിൽ അവിടെ വല്ലതും പറയുവാണെങ്കിലോ ഓൾറെഡി പേയ്മെൻറ് ചെയ്തതല്ലേ സാറേ ആ പേയ്മെൻറ് ചെയ്തതാണ് അതെ അതെ പേയ്മെൻറ് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല സാറേ അപ്പം വീട്ടിൽ വൈഫ് ഉണ്ടോ പിള്ളേർ ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി സാർ അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ വിളിക്കുമ്പോഴത്തേക്കും അവരോടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ അവിടെ വരുമ്പോഴത്തേക്കും ഞാൻ കൊടുത്തോളാം പേയ്മെൻറ് ചെയ് പേയ്മെൻറ് ചെയ്തതായതുകൊണ്ട് അത് പിന്നെ സാറേ ആ ഒത്തിരി ദിവസം ആയി എന്ന് പറയുമ്പം ഇന്നാണ് നമുക്ക് ആ ഒരു സാധനം കിട്ടിയത് ഇന്നാണ് ഡെലിവറി പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് നമുക്ക് ആ സമയത്തേ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ ആ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ സാർ ആ സാർ ആ എനിക്ക് അത് അറിയാം മനസ്സിലാവുന്നുണ്ട് സാറേ സാർ ഒത്തിരി സമയം ആയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും അപ്പം നമ്മൾ ഈയൊരു കാര്യം ആയതുകൊണ്ടാണ് ഇത്രയും ഇത് കിട്ടിയത് ഇപ്പോഴാണ് അപ്പം ഇവർ സമയത്ത് നമ്മുടെ നമുക്ക് കമ്പനി തന്നിരിക്കുന്ന ഈ സമയത്താണ് ഡെലിവറി ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത് ഈയൊരു സമയത്ത് നമ്മൾ ഇറങ്ങി ഈ റൂട്ടിലോട്ടുള്ള എല്ലാം കവർ ചെയ്യുവാണ് നമ്മൾ ചെയ്യാറ് അങ്ങനെ ചെയ്യും ആ പക്ഷേ നമ്മുടെ നമ്മുടെ ജോലി ഇതാണ് സാറേ നമുക്ക് ആ ആ ഒരു ആൾക്കാരുടെ എല്ലാം കൊടുക്കണം നമുക്ക് ഒരാളുടെ മാത്രമല്ലല്ലോ എല്ലാവരുടെയും കൂടെ കൊടുക്കേണ്ടതായതുകൊണ്ട് തന്നെ ഇതിപ്പം എല്ലാവരുടെയും കൊടുത്ത് കൊടുത്ത് നമ്മൾ ഇങ്ങനെ വരുവാണ് ഇപ്പം എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് കൊടുത്ത് അപ്പം സാറിൻ്റെ ആ ഒരു ഏരിയ കവർ ആവുമ്പോഴത്തേക്കും ഞാൻ സാറിനെ വിളിച്ചോളാം അപ്പം സാർ അവിടെ ഇല്ലെങ്കിലും ആര് അടുത്തുള്ള വീട്ടിലാണെങ്കിലും കൊടുക്കാം പേ പേയ്മെൻറ് ഓൾറെഡി ചെയ്തതായതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല ഇപ്പം

ആ അതെ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം പ്രശ്നം വരുന്നില്ല നമുക്ക് ആ ഒരു ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലേ ഒരു പ്രശ്നമുള്ളൂ ക്യാഷ് കിട്ടിയാലേ നമുക്ക് ആ സാധനം തരാൻ പറ്റുള്ളൂ എന്നൊരു പ്രശ്നം ക്യാഷ് ഓൺ ഡെലിവറിക്കേ വരുള്ളൂ ഈ ഒരു പേയ്മെൻറ് ചെയ്തതായതുകൊണ്ട് നമുക്ക് അടുത്തുള്ള ആരോടെങ്കിലും പറഞ്ഞാലും അവിടെ ആണെങ്കിലും കൊടുക്കാം കുഴപ്പമില്ല

ആ ഓക്കെ ഓക്കെ സാറേ അത് കുഴപ്പമില്ല നമുക്കത് ഞാൻ അവിടെ വരുമ്പോഴത്തേക്കും സാ സാർ എന്തായാലും ഞാൻ വിളിക്കും ഞാൻ അടുത്ത് വരുമ്പം എന്തായാലും സാറിനെ കോൺടാക്ട് ചെയ്യാം കുഴപ്പമില്ല ഓക്കെ ഓക്കെ സാറേ ഓക്കെ താങ്ക് യു